ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെ അപ്പോൾ അവിടെ നിങ്ങള് പറഞ്ഞ ചാർജ് പറഞ്ഞിട്ടുണ്ടെങ്കില് എനിക്ക് പിന്നെ കോഴിക്കോട് പോകാനായിരുന്നു അപ്പോൾ നിങ്ങളെന്നോടു പറഞ്ഞു മൂവായിരം രൂപ ഉണ്ടെങ്കില് മൂവായിരം വേണ്ട രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഉള്ളിൽ നമ്മളവിടെയെത്തിക്കാം എന്ന് പറഞ്ഞു ഇവിടുന്ന് കുറച്ച് സ്ഥലത്തൊക്കെ പോയി കുറച്ചു ലേറ്റ് ആകും എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങള് പറഞ്ഞു ഓക്കെ മൂവായിരം രൂപ മതി എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് മതിയെന്ന് പക്ഷേ മ്മ് ഡ്രൈവർ എന്നോട് പറഞ്ഞത് അതു പോരാ അയാൾക്ക് എസ്ട്രാ അഞ്ഞൂറ് രൂപയും കൂടി ഞാൻ കൊടുക്കണം എന്ന് അതെന്താണ് അതിൻ്റെ അതെനിക്ക് മനസിലായില്ല അതു നിങ്ങളാദ്യമേ അങ്ങനെ എക്സ്ട്രാ ഞാൻ പേ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഞാൻ ക്യു ആർ പിന്നെ ബുക്ക് ചെയ്യുമ്പം ഡ്രൈവർക്ക് ഞാൻ പേ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതെന്താണെന്നെനിക്ക് മനസിലായില്ല നിങ്ങള് അതെന്താണ് നിങ്ങൾ അങ്ങനെ ആണോ എല്ലാവരുടെയും അടുത്ത് നിന്ന് അങ്ങനെയാണോ വാങ്ങുന്നത് ഏ നേരത്തെ അറിയുമായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ ബുക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ലല്ലോ ഇങ്ങനെയാണോന്നുള്ളതറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ കെട്ടോ എങ്ങനെ ഞാനെന്തായാലും എനിക്ക് വേണ്ട ഇനിയിപ്പം അങ്ങനെ എക്സ്ട്രാ പേ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അതെന്താണ് കാരണമെന്ന് കൂടി അറിയണമല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ്